ആരാധനയ്ക്ക് അനുചരിക്കുന്ന രീതിയിൽ പ്രത്യേക സാംസ്കാരിക അനുഷ്ഠാനങ്ങളുണ്ട് എന്താ പറയുക കല്ല് വിഗ്രഹാരാധന നടത്തുന്നു കൊത്തു കൊത്തുപണികളെ അല്ലെങ്കിൽ അവിടെ നടന്ന അത്ഭുതങ്ങൾ നടന്നു എന്നു പറഞ്ഞുകൊണ്ട് കാണുന്ന പുരാവസ്തുക്കളും പുണ്യാളങ്ങളും ഒക്കെ ആരാധിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാമിന്നു ജീവിക്കുന്നത് അതിനെയൊക്കെ സംസ്ക്കരിച്ച് ആധുനിക ആചാരങ്ങൾക്ക് വിധേയമായിട്ടാണ് ആചാരങ്ങൾക്ക് ആചാരങ്ങളല്ലാതെ ആധുനിക രീതിയിൽ സാംസ്ക്കാരിക അനുഷ്ഠാനങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നതാണ് ഇതൊക്കെ